ആ നേടിയെടുക്കാനാഗ്രഹിക്കുന്ന നെയ്ത്തുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചാല് അത് പഠിച്ചിട്ട് സ്വന്തമായിട്ട് ഒരു ഒരു ഒരു ഷോപ്പ് ഒക്കെ ഇട്ട് അത് ഇച്ചിരി വിപുലീകരിച്ച് കൊണ്ടു പോവുന്നതിനോടൊരു താല്പ്പര്യം ഉണ്ട് ഈ തയ്യലിനോട് ഭയങ്കര ഇന്ട്രസ്റ്റ് ഉണ്ട് അപ്പം അതുവഴി ആ തയ്ച്ചത് കിട്ടുമ്പോൾ ഒരു ചെറിയ ഒരു നമുക്ക് സഹായമാകത്തക്ക രീതിയിൽ ഒരു വരുമാനം ദിവസം ഓരോ ഒരു ചെറിയ തോതിലാണെങ്കിലും ഒരു വരുമാനം നമ്മുടെ ജീവിത മാര്ഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുന്നതിനോട് ചെറിയ തോതില് ചെറിയ ഒരു താല്പ്പര്യം ഉണ്ട് അപ്പം ഇത് പഠിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോള് അത് നമ്മൾ ചെറിയൊരു ഷോപ്പ് ഒക്കെ ഇട്ട് അതിന്റെതായിട്ടുള്ള രീതിയില് പോവുമ്പം നമുക്ക് അതിന്റെതായ ജീവിതത്തിൽ നമുക്കൊരു ചെറിയൊരു വരുമാന മാര്ഗം നമ്മുടെ ഭര്ത്താവിനെ സഹായിക്കാൻ ചെറിയൊരു വരുമാന മാര്ഗം അതിനോട് താല്പ്പര്യം ഉണ്ട് പിന്നെ ഇത് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊരു നേട്ടമാണ് എംബ്രോയ്ഡറിയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പഠിച്ച് കഴിഞ്ഞാൽ അതിന്റെതായിട്ടുള്ള ഒരു പഠിച്ചിരിക്കുമ്പം മക്കൾക്ക് ആണെങ്കിലും തയ്ച്ചു കൊടുക്കാനും അതിന്റെതായിട്ടുള്ള ആ മറ്റുള്ളവര്ക്ക് നമ്മൾ ഈ ഒരു പഠിച്ചിരുന്നാൽ മറ്റുള്ളവര്ക്ക് കൂലി കൊടുക്കാതെ അത് സ്വന്തമായിട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അതൊരു നേട്ടമാണ് പിന്നെ ഒരു ചെറിയൊരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളെല്ലാം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വരുവാനം വരുമാനമാര്ഗം ആകുന്നുണ്ട് പിന്നെ ഒരു ജീവിതമാര്ഗമാണ് പിന്നെ നമുക്ക് പുതിയ പുതിയ കുറേ കാര്യങ്ങൾ പഠിച്ച് അത് വര്ക്ക് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും എംബ്രോയ്ഡറി ചെയ്യാനും അതിന്റെതായിട്ടുള്ള ഒത്തിരി നല്ല നല്ലത് കുറേ കുറേ കാര്യങ്ങൾ പഠിക്കാനും അതുകൊണ്ട് കുറച്ച് നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങളെക്കെ അറിയാം പിന്നെ ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെത്തെ തയ്യൽ പഠിക്കുന്നതിനോടും തയ്യൽ ചെയ്യാനും വര്ക്ക് ചെയ്യാനും ഒത്തിരി ഇഷ്ടമാണ് അതുവഴി നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് നമുക്കൊരു ഒരു വരുമാനമാര്ഗം കൂടുതലായിട്ടും മറ്റുള്ളവര്ക്ക് തികച്ച് കൊടുക്കുമ്പോള് അതില്നിന്ന് കിട്ടുന്ന വേദന നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു വരുമാനമാര്ഗം നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനും അതിന് വേണ്ടിയിട്ട് നമുക്കത് ചെലവഴിക്കുന്നതിനും ചെറിയ ചെറിയ രീതിയിൽ ഒരോ സമ്പാദ്യങ്ങൾ നമുക്ക് അതുവഴി ഉണ്ടാക്കാന് സാധിക്കും അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അത് ചെറിയൊരു വരുമാനമാര്ഗമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മള്ക്ക് അത് മക്കളെ പഠിപ്പിക്കുന്നതിനും അതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ഒരു വരുമാനമാര്ഗവും നല്ല അത് പഠി പഠിക്കാനും തയ്ക്കാനും അത് അനുസരിച്ച് മുന്നോട്ട് പോകാനൊള്ള നല്ല ഒരു വരുമാനമാര്ഗമായിട്ട് നമുക്കത് മാറും പിന്നെ എംബ്രോയ്ഡറി വര്ക്ക് പേള് പെയിന്റിങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് നമുക്കത് സാധിക്കുന്നുണ്ട് അതിനോട് താല്പ്പര്യമാണ് തയ്യൽ നമുക്ക് വീട്ടമ്മമാര്ക്ക് ചെറിയൊരു വരുമാനമാര്ഗമാണ് തയ്ച്ചു കൊടുത്ത് നമുക്ക് ചെറിയൊരു സമ്പാദ്യം ഉണ്ടാക്കാനും പിന്നെ അത് നമുക്കൊരു വരുമാനമാര്ഗവും നമ്മുടെ സമയം നമുക്ക് അത് സമയം ചെലവഴിക്കാനും അത് അങ്ങനെയുള്ള ഒരു ഇത് സാഹചര്യങ്ങളോ ഉണ്ടാകുന്നുണ്ട് പിന്നെ അത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയൊരു ഷോപ്പ് ഇടുന്നതിന് ഒരു ആഗ്രഹം ഉണ്ട് കുറച്ചുംകൂടെ നല്ലവണ്ണം പഠിച്ച് ഈ എല്ലാത്ത രീതിയിലും നല്ല ഇതായിട്ട് പഠിച്ച് നല്ല ഒരു വരുമാനമാര്ഗമായിട്ട് ചെയ്യുന്നതിനും തയ്ക്കുന്നതിനും മറ്റുള്ളവര്ക്ക് തയ്ച്ച് കൊടുക്കാൻ പഠിക്കാനും അതിനുള്ളതായിട്ട് നല്ല ഒരു വരുമാനമാര്ഗവും ഒരു ഇന്ട്രസ്റ്റും അത് ചെയ്യുന്നതിനോട് ഭയങ്കര താല്പ്പര്യവും ഇഷ്ടവുമാണ്